പാചകത്തിനായിട്ട് നമ്മള് ചെലവഴിക്കുന്ന സമയം എന്ന് വിച് വെച്ചാല് നമ്മള് ഓരോ ദിവസവും ഓരോ വിഭവങ്ങളാണ് സാധാരണയായിട്ട് തയ്യാറാക്കാറ് അപ്പോൾ അത് ഏത് രീതിയിൽ തയ്യാറാക്കുന്നു എന്ന് വെച്ചാല് അതിനനുസരിച്ച് സമയം കൂടുതലും കുറവുകളൊക്കെ വരാറുണ്ട് പിന്നേ എന്ന് വെച്ചാല് ഇവിടെ നമ്മുടെ പാചകവിധി അറിയാതെ ഞാന് തയ്യാറാക്കിയത് ആദ്യമായിട്ടെന്താന്ന് വെച്ചാല് നമ്മുടെ മന്തിയാണ് മന്തീ മന്തി നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ കേട്ടറിഞ്ഞ് വന്ന ആ ഒര് സമയത്ത് മന്തിയുണ്ടാക്കണം എന്നൊര് മോഹമുണ്ടായിരുന്നു അങ്ങനെ മന്തി റൈസൊന്നുവല്ല ഇവിടെ വീട്ടിലുണ്ടായിരുന്ന ബിരിയാണിയരി വെച്ചിട്ട് മന്തി തയ്യാറാക്കാൻ നോക്കി അങ്ങനെ ചിക്കനൊക്കെ കൊണ്ടുവന്ന് നമുക്ക് വല്ലാണ്ടറിയില്ല കഴിച്ച് നോക്കിയിട്ടുണ്ട് അതിന്റെ ചേര്ക്കുന്ന റെസിപ്പി ആരുടെ അടുത്തും ചോദിച്ചതുമില്ല അങ്ങനെ യൂറ്റൂബിന്റെ സഹായത്തോട് കൂടി ഒര് മന്തി ചോറുണ്ടാക്കി അങ്ങനെ അതിലേക്ക് വേണ്ട മന്തി മസാലയൊക്കെ തയ്യാറാക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അതിലേക്ക് വേണ്ട കുരുമുളക് ഗരംമസാല മന്തിമസാല അങ്ങനെ യൂറ്റൂബിന്റെ സഹായത്തില് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ നോക്കി അതിലും യൂറ്റൂബില് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉള്ളത് കുറച്ചൊക്കെ കൂട്ടിച്ചേര്ത്ത് ഉണ്ടാക്കി അതൊക്കെ മന്തിമസാലയൊക്കെ ചേര്തുണ്ടാക്കി അന്നതില് പിന്നേ ഓ അതൊന്ന് പൊരിച്ചെട് എണ്ണയില് പൊരിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങനെ ചെയ്ത് വന്ന് ഏതാണ്ട് കുക്കറില് കുറച്ച് ചിക്കനൊക്കെ എടുത്തിട്ട് മന്തി ഉണ്ടാക്കി നോക്കി പിന്നതില് അവര് യൂട്യൂബുകാർ അതില് കളറുകളൊക്കെ ചേർക്കുന്നുണ്ട് നമുക്ക് കളറ് ചേര്ക്കണമെന്ന് വലിയ ഇഷ്ടില്ലാത്തത് കാരണം ഫുട് കളറ് ചേര്ക്കണതൊന്നും നല്ലതല്ലല്ലോ അതൊക്കെ ആരോഗ്യത്തിന് ഹാനീകരായി മാറുന്നത് കൊണ്ട് മഞ്ഞപ്പൊടിയിൽ മഞ്ഞക്കളറ് ചോറ് കാണാറുണ്ടല്ലോ അപ്പോൾ മഞ്ഞപ്പൊടിയിൽ കുറച്ച് അത് ചേര്ത്തിട്ട് അത് വെള്ളമൊഴിച്ച് അതേപോലെ ബീട്രൂട്ട് ഉണ്ടായിരുന്നു ആ ബീട്രൂട്ട് കുറച്ച് കലക്കിയിട്ട് പൊടി കലക്കിയങ്ങടരച്ചിട്ട് അതിന്റെ കുറച്ച് കളറെടുത്തിട്ട് ചുവന്ന കളറിന് അത് ഉപയോഗിക്കുക എന്നൊക്കെ കേട്ടറിവുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ചേര്ത്തെങ്ങാണ്ട് മന്തി കുക്കറില് വെച്ചു ലാസ്റ്റ് നമ്മുടെ എല്ലാ ഇതും കഴിഞ്ഞ് മന്തി എടുത്ത് പാകായി നമ്മള് ഒര് സമയമൊക്കെ കഴിഞ്ഞു കുക്കറൊക്കെ തുറന്നു നോക്കിയപ്പം മന്തി ഏതായാലും അറിയാതെ വെച്ച് കഴിഞ്ഞപ്പം നല്ല രുചിയായിട്ടുണ്ടാരുന്നു എല്ലാവരും കഴിച്ചു എല്ലാവർക്കും നല്ല ഇഷ്ടമായി എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അപ്പോൾ അറിയാതെ ചെയ്ത് വന്നത് നോക്കുമ്പോൾ ഏറ്റവും നല്ല സ്വാദുള്ള ഒര് മന്തിയായിട്ട് കിട്ടി